ഇപ്പോൾ മൃഗങ്ങളേ സംരക്ഷിക്കാന് നല്ലരീതിയിലുള്ള അതായത് നമുക്ക് നല്ല രീതിയില് ഇപ്പോൾ ഒരു മൃഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പശു പശുവിനേ നമ്മള് സംരക്ഷിക്കുന്നതിന് നല്ല രീതിയിലുള്ള ആലയും കാര്യങ്ങളൊക്കേ നമുക്കത് ആവശ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതില് അവിടേ വൃത്തിഹീനമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലാണെങ്കിൽ നമുക്കത് നടക്കില്ല കാരണമെന്തെന്ന് വെച്ചാൽ അത് അതുങ്ങള് ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലരീതിയില് പാലുത്പാദനം ചെയ്യണമെങ്കിലും അതിന് നല്ലരീതിയുള്ള ആരോഗ്യം കിട്ടണമെങ്കിലും നമുക്ക് നല്ല രീതിയില് വൃത്തിയുള്ള ഒരു ആലയും കാര്യങ്ങളൊക്കേ നമുക്ക് എപ്പഴും ആവശ്യമുള്ളതാണ് അപ്പോൾ ആല ഏതുനേരവും നമ്മള് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മള് കഴുകിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കേ നമ്മള് മൈനായിട്ട് ചെയ്യുക അപ്പോൾ പശുവിന് നല്ലരീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അതിന് പ്രോട്ടീനോ അങ്ങനത്തേ എന്തേലും കുറവുണ്ടെങ്കില് അതിന് പ്രോട്ടീൻ പൗഡർ കാര്യങ്ങളൊക്കേ നമ്മള് കൂടുതലായിട്ടും കൊടുക്കേണ്ടി വരുന്നുണ്ട് പിന്നേ ഇപ്പോൾ അതിന് കുളമ്പുരോഗം ഇപ്പോൾ രോഗങ്ങളൊക്കേ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കാര്യങ്ങളൊക്കേ കൂടുതലാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ കുളമ്പ് രോഗത്തിനുള്ള കുത്തിവെയ്പ്പ് കാര്യങ്ങളൊക്കേ ചെയ്യുവാണെങ്കില് അങ്ങനത്തേ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പല രീതിയിലുള്ള വൈറസ് കാര്യങ്ങളൊക്കേ അതിനെ ബാധിക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു ചർമ്മമുഴ എന്നുപറഞ്ഞിട്ടുള്ള ഒരു വൈറസ് കാര്യങ്ങളൊക്കേ അതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചത്തു പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കേ കൂടുതലാണ് അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള പ്രതിരോധ മരുന്നുകള് കാര്യങ്ങളൊക്കേ കൊടുക്കുക നമ്മള് കൂടുതലായിട്ട് ആ ടൈമിലൊക്കെ നാട്ടുവൈദ്യങ്ങള് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തു കൊണ്ടിരുന്നത്